ഞാന് വിശ്വസിക്കുന്ന മതമെന്നു വെച്ചു കഴിഞ്ഞാൽ ഞാന് ക്രിസ്തീയ വിശ്വാസത്തിലാണ് വിശ്വസിക്കുന്നത് ഞാന് പള്ളിയിൽ പോകുന്നൊരു ക്രിസ്ത്യാനിയാണ് ഞായറാഴ്ചകളിൽ കുര്ബാന മുടക്കാറില്ല എന്റെ മത വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രന്ഥങ്ങള് ഉണ്ട് വിശുദ്ധ ഗ്രന്ഥം ഉണ്ട് ബൈബിള് വിശുദ്ധ ഗ്രന്ഥം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഉള്ള ഒരു ഒന്നാണ് വിശുദ്ധ പള്ളികള് അതു പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങള് വിശുദ്ധ കുര്ബാന ഞായറാഴ്ച്ച ദിവസങ്ങളില് വിശുദ്ധ കുര്ബാന കാണുക എന്നതും ഞങ്ങളുടെ ഒരു രീതിയിൽ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തില് എഴുതിയിരിക്കുന്ന കാര്യങ്ങള് അതേ പടി നമ്മുടെ ജീവിതത്തില് പകര്ത്തുക നമ്മളതേപടി നമ്മുടെ കാര്യങ്ങള് മുന്നോട്ടു ചെയ്യുക എന്നതും വളരെ പ്രധാനമായൊരു കാര്യമായിട്ടാണ് ഞങ്ങള് ക്രിസ്ത്യാനികള് കാണുന്നതും അതു പോലെ തന്നെ ക്രിസ്ത്യാ ക്രിസ്ത്യാനികളുടെ ഒരു ദൈവിക ചിന്ഹമായി തന്നെ കാണുന്നതാണ് കുരിശ് ക്രിസ്തീയ വിശ്വാസത്തില് അതിനു പ്രധാനമായൊരു പങ്കു തന്നെയുണ്ട് അതായത് കര്ത്താവ് ഈശോ മിശിഹ കാല്വരിയിലെ കുരിശില് കിടന്നാണ് മരിച്ചത് കുരിശ് നമുക്ക് പ്രതീകമാണ് നമ്മളൊരു സമാധാനത്തിന്റെ പ്രതീകമായാണ് കുരിശിനെ ഇപ്പോൾ എല്ലാവരും കാണുന്നത് അതു പോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ഈശോയുടെ ജീവിതത്തെ തന്നെയാണ് വരച്ചു കാണിക്കാനായിട്ടു സാധിക്കുന്നതും വിശുദ്ധ കുര്ബാനകളില് നമുക്ക് അവിടെ നടന്ന സംഭവങ്ങളും അതിന്റെ ഒരു അനുഭവവേദ്യമായി തന്നെയാണ് നമുക്ക് കാണാന് കഴിയുന്നത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ ബൈബിള് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങള് കാര്യങ്ങള് എല്ലാം ജീവിതത്തില് പകര്ത്തിയ കര്ത്താവ് ഈശോ മിശിഹ നമുക്കായി സഹിച്ച് കാല്വരിയിൽ മരണമടഞ്ഞു നമ്മൾ മനുഷ്യ രാശിയുടെ പാപങ്ങളെല്ലാം വഹിച്ച് അതെ അവിടെ നിന്നു മരിച്ചു പാപങ്ങളേറ്റെടുത്തു മനുഷ്യരെ പാപത്തില് നിന്നും മോചിപ്പിച്ചു എന്നതിന്റെ പ്രതീകമായി ഞങ്ങള് ക്രിസ്ത്യാനികള് അതിനായി നമ്മള് വിശുദ്ധ കുര്ബാനയില് ഉടനീളം ആ കാര്യങ്ങളാണ് അനുഭവവേദ്യമായി എടുക്കുന്നത് അതുപോലെതന്നെ വിശുദ്ധ ഗ്രന്ഥത്തില് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കര്ത്താവിന്റെ ജീവിതത്തെ എങ്ങനെ മാതൃകയാക്കാം അതു നമ്മള് വചനങ്ങള് സ്വര്ഗ്ഗത്തില് നിന്നുള്ള ഒരു നമുക്ക് തരുന്ന ഒരു സുവിശേഷം എന്ന രീതിയില് നമുക്കതിനെ കാണുകയും ചെയ്യാം വചനങ്ങളെ നമുക്കാത്മാവിന്റെ ഭക്ഷണം എന്നു തന്നെയാണ് വിശേഷിപ്പിക്കാനായിട്ടു സാധിക്കുന്നത് അതു പോലെ തന്നെ കുറേ ധാരാളമായ ചിന്ഹങ്ങളും കാര്യങ്ങളുമുണ്ട് അതായത് വിശുദ്ധ ഗ്രന്ഥത്തില് പ്രധാനമായും ക്രിസ്ത്യാനികള് കൃസ്ത്യനികളുടെ കുരിശ് എന്നതാണ് പ്രധാനമായൊരു ചിന്ഹമായിട്ട് നമുക്ക് കാണുന്നത് കുരിശ് വരക്കുക എന്നത് നമ്മള് നമ്മളെ തന്നെ ഒരു സംരക്ഷണത്തിന്റെ വലയത്തിലേക്കു മാറ്റുക എന്നതിനെ പ്രതീകമായി നമുക്കെടുക്കാന് സാധിക്കുന്നുണ്ട് കര്ത്താവിന്റെ സ്വര്ഗ്ഗത്തിലേക്കുള്ള ഒരു കടന്നു വരവു തന്നെ ആണത് പിന്നെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് അതായത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് മനുഷ്യരിലേക്കിറങ്ങി വന്നു അവിടെയാണ് അദ്ദേഹത്തിന്റെ മൂന്നു ത്രിത്വൈക ദൈവം എന്ന ഘടന സംഭവമാകുകയും ചെയ്യുന്നത് അതുപോലെതന്നെ ഗ്രന്ഥ പുസ്തകങ്ങളില് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തില് ഇറങ്ങി വരികയും സ്രീഹന്മാര്ക്ക് മാര്ഗ്ഗ ദര്ശനം നല്കുകയും അവരെ ലോകത്തിലെ നാനാഭാഗങ്ങളിലേക്കു സുവിശേഷം വൃതം നയിക്കാനായി പറഞ്ഞു വിടുകയും ചെയ്തു അതിലൂടെയാണ് ലോകത്തില് ക്രിസ്ത്യാനികളുടെ എണ്ണം വര്ദ്ധിച്ചു വരികയും ക്രിസ്ത്യ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അതും ഇതിൻറ്റേതായ വി പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിട്ടു നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ്